ആ ആ ഞാൻ വിളിച്ചിരുന്നു ആ പിന്നെ മീൻ കുറച്ച് വേണമായിരുന്നു കേട്ടോ ഞണ്ട് നത്തോലി മത്തി എനിക്ക് ഇന്ന് കിട്ടിയാൽ കൊള്ളാം നാളത്തെ ആവശ്യത്തിനാണ് ഓക്കെ ഡ അത് നാളെ കിട്ടിയാലും മതി പക്ഷെ ഈ ഉള്ള മീൻ ഇന്ന് ഒത്തിരി ഒരു മണിക്കൂറിനകത്ത് കിട്ടിയാൽ കൊള്ളാം നാളെന്റെ മറ്റന്നാൾ എന്റെ മോളുടെ കല്ല്യാണമാണ് അതിൻ്റെ ആവശ്യത്തിന് ഉള്ളതാണ് എനിക്ക് ഒരു കുറച്ച് കല്ല്യാണ ആവശ്യത്തിനാണ് കുറച്ച് കൂടുതൽ വേണ്ടി വരും തലേ ദിവസം പറയണോ മീന് അഡ്രസ്സ് ഞാൻ വേണമെങ്കിൽ പറ അഡ്രസ്സ് അറിയാമല്ലോ അല്ലേ ഇതിന് മുമ്പ് മീൻ വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു ദിവസം വാങ്ങിച്ചിട്ട് മീന് കേടായി അപ്പോൾ അഡ്രസ്സ് അറിയാമാരിക്കും ആ അ അതെ ആ അങ്ങനെ ഒരുക്കം ഇല്ലാതെ ആയിരിക്കും നിങ്ങളുടേയിൽ നിന്നാണെന്ന് അറിയാം പക്ഷെ പോട്ടെ അത് ക്ഷമിച്ച് ഇന്ന് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല നല്ല മീന് കൊണ്ട് കൊടുത്തയക്കണം അ അ ഓക്കെ അമ്പത് ഞണ്ടാണ് വേണ്ടത് അ മറ്റന്നാളെത്തെ മറ്റന്നാൾ കല്ല്യാണം നാളെ കിട്ടിയാൽ കൊള്ളാം നാളെ പറ്റുമോ നാളെ കൊണ്ടുതരാൻ പറ്റുമോ

ആണോ ആണോ ആ അ റേറ്റ് പ്രശ്നമില്ല പക്ഷെ മീന് കെടാതിരുന്നാൽ മാത്രം മതി ഞങ്ങൾക്ക് അത് അ ഫ്രഷ് ആയിട്ട് കൊണ്ട് വന്നാൽ മതി ക്ലീൻ ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിൽ ആളുണ്ട് ആ മ് അല്ല കൊടുത്തയക്കുന്നതാണ് നല്ലത് ഇപ്പം ആളിത്തിരി ഇല്ല ഞങ്ങളുടെ ആൾ കുറവാണ് വീട്ടിൽ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒന്ന് കൊടുത്തയച്ചാൽ കൊള്ളാം അ അ ആ ഓക്കെ ഓ അത് സാരമില്ല സാർ ഓക്കെ കൊടുത്തോളു കൊടുത്തോളു

വേറെ പ്രത്യേകിച്ച് ഇത് കൊഞ്ച് കൊഞ്ച് അത് ഞാൻ ആദ്യമേ പറഞ്ഞു കൊഞ്ചിന്റെ കാര്യം മറക്കരുത് കേട്ടോ അ ഓക്കെ ആ അത് ക്ലീൻ ചെയ്യേണ്ട അത് ഞങ്ങൾ ഞാൻ അതൊക്കെ ഞാൻ ചെയ്തുകൊള്ളും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി ഓക്കെ ആ അത് അത് ആ തരാം ഞ അയച്ച് തരാം ഗൂഗിൾ പ്പേ നമ്പര് പറഞ്ഞ് തന്നാൽ മതി ആ വാട്ട്സപ്പ് ഉണ്ട് ഇതിന് മുമ്പ് ഞാൻ വാങ്ങിക്കുന്നത് ആണല്ലോ എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷേ എത്ര രൂപയാവും ടോട്ടൽ എത്രയാവും എന്നുംകൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ ആ അ ഓക്കെ ഇല്ല സാരമില്ല ആ അ അ ഞണ്ടിന് മാത്രം എത്ര രൂപയാണ് അമ്പത് ഞണ്ട് എന്ന് പറഞ്ഞേന് ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ശരി ഓ ഓ ഓക്കെ സാർ ഓക്കെ